നമ്മുടെ സംസ്കാര സംസ്താരതമ്യ സംസ്കാനം രൂപപ്പെടുത്താനായിട്ട് ഈ നാടിൻ്റെ സംസ്കാര സാംസ്കാരികമായി സമയണ്ടാഹ്വാനം പ്രവർത്തിച്ചത് അവിടുത്തെ സംസ്കാരിക നായകന്മാരും നമ്മളെ പൂർവ്വികരൊക്കെയാണ് അവർ നമ്മുടെ സംസ്കാരത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും പല പല ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുണ്ടായപ്പോൾ അതിനോടക്കെ മല്ലിട്ട് മല്ലിട്ട് നിന്ന് നമ്മുടെ സംസ്കാരത്തെ പുനരുദ്ധീയ്ക്കാനായിട്ട് അവരെല്ലാം ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു സംസ്കാരം വളർത്തിയെടുക്കാനായിട്ട് നമ്മുടെ പാരമ്പര്യം കൈവിടാതെ മുമ്പോട്ട് പോവാനായിട്ട് സാധിച്ചിട്ടുണ്ട് മലയാളത്തിലെ കൂടുതൽ സംസ്കാരിക നായകന്മാരടെ പേരുകൾ എടുത്ത് പറയാനായിട്ട് സാധിക്കുകയില്ല വളരെയധികം പേർ അതിൽ പങ്കെടുക്കുകയും അതിൽ അവരുടെ ജീവൻ ത്യജിച്ചും നമ്മുടെ സംസ്കാരം നിലനിർത്താനായിട്ടൊക്കെ പരിശ്രമിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ മലയാളത്തിലുണ്ടായിട്ടുണ്ട്